മുതിർന്ന പൗരന്മാർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പം അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എങ്ങനെ എളുപ്പം ചെയ്യാവുന്ന വിധത്തിൽ ആക്കാം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർ എന്ന് ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മുപ്പത് ഇരുപത് ഇരുപത്തി അഞ്ച് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ ഉള്ളവരുടെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവരെ പറ്റി പറയുവാണെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ ഒന്നും ഈ പറഞ്ഞത് പോലെ ഫോണും കാര്യങ്ങൾ ഒന്നും അവർക്ക് നേരാവണ്ണം ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എ ഐ അങ്ങനത്തെ സംവിധാനങ്ങൾ ഒക്കെ എങ്ങനെ നല്ലോണം ഉപയോഗിക്കണം എന്നതിന് ഉള്ളതിനെപ്പറ്റി അവർക്ക് ഒരു അറിവ് കിട്ടിയിട്ടില്ല അത് അത് ഇപ്പം ഇപ്പോഴാണ് ഈ എ ഐ അതായത് ഒരു ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് കാലഘട്ടം തൊട്ടാണ് ഈ എ ഐ കാര്യങ്ങൾ എല്ലാം വന്ന് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി നല്ലൊരു അറിവോ കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ട് ഉണ്ടാകില്ല ഉണ്ടാവില്ല അത് വലിയ ഒരു പ്രശ്നമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിലും എല്ലാവരും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് മാത്രം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ ഈ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം പഠിപ്പിച്ച് കൊടുക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളിൽ ആണെങ്കിലും അവർക്ക് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് പോലെ ഉള്ള ഉപകരണങ്ങളുടെ സഹായം തേടി അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജോലി കാര്യങ്ങൾ എല്ലാം കൊണ്ട് പോവാൻ സാധിക്കും അവരുടെ ജോലി ഭാരങ്ങൾ എല്ലാം കുറയ്ക്കാൻ സാധിക്കും അതെല്ലാം വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ പിന്നെ ഈ പറഞ്ഞത് പോലെ കുറച്ചൂടേം പ്രായം കുറഞ്ഞ് കുട്ടികൾക്ക് ആണെങ്കിൽ ഇപ്പം ഈ ഇപ്പം പ്ലസ് ടൂ പ്ലസ് ടൂ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ എ ഐ ഇൻ കമ്പ്യൂട്ടർ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അവയർനസോ ക്ലാസ്സോ കാര്യങ്ങൾ ഒന്നും ആവശ്യം വരത്തില്ല പക്ഷേ എന്നാലും മുതിർന്ന പൗരന്മാർക്ക് അത് ഒരു ആവശ്യകരമായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പോൾ അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ക്ലാസ്സുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഉള്ളതിൻ്റെ നല്ലൊരു ഇത് കൊടുക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ചോദിച്ചില്ലേ എങ്ങനെ എളുപ്പം ചെയ്യാം ചെയ്യാവുന്ന വിധത്തിലാക്കാം എളുപ്പം ചെയ്യാവുന്ന വിധത്തിലാക്കാം ഉള്ളതിൻ്റെ മറുപടി ഇത് തന്നെയാണ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്ത് അവരെ അതിലേക്ക് കൂടുതലും അടുപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ അവരുടെ ജോലി കാര്യങ്ങളിൽ ഒക്കെ ആണെങ്കിലും അത് കൂടുതലും ഈ എ ഐടെ സഹായത്തോട് കൂടി ചെയ്യാനുള്ള തരത്തിൽ ആക്കുക ആണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ള പിന്നെ എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോണും കാര്യങ്ങൾ എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ